ആ പറയൂ പറയൂ ഓ ഇവിടെയോ ഞങ്ങളുടെ റെസ്റ്റോറന്റിൽ എന്താ മത്തി വറത്തത് ഉണ്ട് അയില പൊള്ളിച്ചത് ഉണ്ട് കരിമീൻ വറത്തത് ഉണ്ട് പിന്നെ കൂന്തൽ ഉണ്ട് കണവ ഉണ്ട് നിങ്ങൾക്ക് ഏതാ ആവിശ്യം അതെയോ അതെയോ ഓ ഓ ആ

ആ ആ ആ അതെയോ ആ ആ ആ ആ ഓ കഴിക്കുമോ ശരി ശരി ആ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഓ ചൈനീസ് വെറൈറ്റീസ് എല്ലാം ഉണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പം ഞങ്ങൾ എല്ലാം എന്താ വേണ്ട ഫുഡ് സീഫുഡ് അങ്ങനെ ഒന്നും ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഉണ്ടാക്കി തരും പ്രോൺ ഉണ്ട് ആ എല്ലാ വെറൈറ്റീസ് വരുന്നുണ്ട് അപ്പത്തന്നെ ഞങ്ങൾ എല്ലാം നിങ്ങൾക്ക് കരിമീൻ അപ്പം പ്രോൺ വെ പ്രോൺ വറുത്തത് ഉണ്ട് അങ്ങനെ എന്താണ് ഗ്രേവി കറി വെച്ചത് ഉണ്ട് ആ അത് അല്ലാതെ പ്രോണിൻ്റെ കുറേ വെറൈറ്റീസ് നിങ്ങൾക്ക് ഏതായാലും ഉണ്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടത് അത് ഞങ്ങൾ നിങ്ങൾക്ക് ഇങ്ങൾ ഇവിട വന്ന് കഴിക്കാൻ താൽപ്പര്യം ആണോ അല്ലെങ്കിൽ ഇങ്ങക്ക് ഡെലിവർ ചെയ്യണോ ആ ആ അതെയോ ആ

ആ ആ ആ ആ അതെ അതെ ഓക്കെ ഓക്കെ ആ ആ ആ അത് ശരി ശരി ശരി ആ കരിമീൻ ഇങ്ങനെ കരിമീൻ നമ്മൾ പൊള്ളിച്ചത് ഉണ്ട് കരിമീൻ വറുത്തത് ഉണ്ട് പിന്നെ അല്ലാതെ കരിമീൻ കറിയും നമ്മൾ വെച്ചിട്ട് ഉണ്ട് പിന്നെ അതിൻ്റെ പൊടി തൂവൽ ഉണ്ടാക്കിയിട്ടുണ്ട് കരിമീനും ഉണ്ട് ആ ഇത് ഇപ്പം താങ്കൾക്ക് ഏതാ വേണന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പത്തന്നെ പ്രിപ്പയർ ചെയ്ത് ഞങ്ങൾ അപ്പം എന്താണ് ചൂടോടെ കൊടുക്കാറ് ഉള്ളത് ആണ് ആ മെയിനായിട്ട് ഉള്ള ഡിഷ് സീഫുഡ് ആണോ വേറെ ഏതെങ്കിലും വെറൈറ്റീസ് ആണോ

ആ ആ ആ എന്താ ഇത് പിന്നെ നമ്മൾ ആ വ്യത്യാസമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒക്കെ നമ്മൾ വേറെ ഇപ്പം റെസ്റ്റോററ്റിന്റെ അപേക്ഷിച്ച് നമ്മളുടെ പറയുമ്പളേക്കും ടേസ്റ്റ് കൂടുതൽ ആണ് അധികം നമ്മൾ കളർ ഒന്നും നമ്മൾ അങ്ങനെ ചേർക്കാറില്ല ഫ്ലേവർ ഒന്നും ചേർക്കാറില്ല എന്താണ് നാച്ചുറൽ ഫുഡ് ഫുഡെന്നെ ആണ് നമ്മൾ അത് കായലിൻ്റെ പോന്ന ആ ഓരത്താണ് നമ്മളുടെ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളത് നിങ്ങൾക്ക് എന്താ വേണന്ന് പറഞ്ഞേച്ചാ അപ്പത്തന്നെ നമ്മൾ ആ കായലിന്ന് ഏത് സീഫുഡ് വേണന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ ആയാലും ആ കൊണ്ടു വന്നിട്ട് നമ്മൾ അതിനെ വറുത്ത് അപ്പത്തന്നെ ഫ്രഷ് ആയിട്ട് കൊടുക്കാണ് ചെയ്യുന്നത് ഓ ഓൾവേയ്സ് വെൽക്കം ഓൾവേയ്സ് വെൽക്കം വെൽക്കം വെൽക്കം ഓക്കെ ആ ആ ആ താങ്ക്യൂ താങ്ക്യൂ ആ ഇല്ല ഇല്ല നമ്മൾ സ്റ്റാഫുകൾ ഒരുപാട് ഉണ്ട് നമുക്ക് കുക്ക് ചെയ്യാനും എല്ലാവരും ഉണ്ട് ഇതുപോലെ ഒക്കെ ഹെൽപ്പിംഗ് മൈൻഡ് ഉള്ളവരാണ് ആ സെർവ് ചെയ്യാനും എല്ലം സന്മനസ്സ് കാണിക്കുന്ന ആണ് നമ്മൾ വച്ച് നടത്തുന്നത് ഈ റസ്റ്റോറൻറ് ഓക്കെ ഓൾവേയ്സ് വെൽക്കം ഓക്കെ ഓക്കെ ഓക്കെ ഓ ഓ ഞങ്ങൾ വേറെ എന്താ വേണന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾ പറഞ്ഞാൽ മതി ഞങ്ങൾ ആ മെനു തരാം ഞങ്ങൾ ഇത് വേണ്ടത് അതിന് അനുസരിച്ച് ഞങ്ങൾ സെർവ് ചെയ്ത് തരാം ഞങ്ങൾ ആണ് നിങ്ങൾ താങ്കൾ എന്താണ് ഓൾവേയ്സ് വെൽക്കം എപ്പളാണ് വരാന്ന് ഒന്ന് വിളിച്ച് ജസ്റ്റ് ഒന്ന് പറയുക കേട്ടോ ഓ ഓ ഓക്കെ ഓക്കെ ഓ